ഹലോ ആനേ ഏതൊക്കെയാണ് വേണ്ടത് രണ്ടും വേണോ കാറും ബൈക്കും നിങ്ങള് നേം ഒന്ന് പറയുമോ രണ്ടും കൂടിയിട്ട് പതിനാറായിരം രൂപയാവും ബൈക്കിനഞ്ച് ക്ലാസും കാറിന് പത്തൊമ്പത് ക്ലാസ്സുമാണ് കൊടുക്കുന്നത് ആ അപ്പോഴേക്കും പഠിക്കാൻ പറ്റും അന്നേരം രണ്ട് മൂന്ന് ക്ലാസ് കൂടുതൽ തരും അപ്പോഴേക്കും നല്ലവണ്ണം പഠിക്കാൻ പറ്റും ആദ്യം ലേണേഴ്സ് ഉണ്ടാകും അതില് വിജയിച്ചാല് മാത്രമെ ക്ലാസ് തുടങ്ങുകയുള്ളു കടുപ്പമൊന്നുമില്ല വേഗം കഴിയും ആദ്യം ഒരു ഇരുപത് ചോദ്യം ഉണ്ടാകും അയി അതില് പന്ത്രണ്ട് ചോദ്യം ശരിയാക്കിയാല് പാസാകും അതന്നേരം തന്നെ കമ്പ്യൂട്ടറില് കാണിക്കും വിജയിച്ചു എന്ന് അതൊക്കെ വിളിച്ച് പറയും ഇല്ല എല്ലാ ദിവസങ്ങളും ശനിയും ഞായറും ഗ്രൗണ്ടിലുണ്ടാവും ബാക്കിയുള്ള ദിവസം റോഡിലൂടെ ഓടിക്കുവാണ് കാറ് ഗ്രൗണ്ടില് രാവിലെ ആറ് മണി തൊട്ട് ഉച്ച ഒരു മണി വരെ ആ ബാക്കി ദിവസം റോഡില് മേഡത്തിന് ചേരാൻ താല്പര്യമുണ്ടോ അപ്പം നിങ്ങള് നാളെ പരിശീലന കേന്ദ്രത്തില് വരുമ്പോൾ തെളിവിനായിട്ടൊരു ഫോട്ടോയും എസ് എസ് എൽ സി ബുക്കും ആധാറും കൊണ്ട് വരണം പതിനൊന്ന് മണിക്ക് അങ്ങനെ വരണം ആ ഓക്കേ